പെട്രോളിൻറെ വില വർദ്ധന ബൈക്ക് യാത്രയെ ബാധിച്ചിട്ടുണ്ട് കാരണം പണ്ട് കാലത്ത് കുറേ വർഷം കുറച്ച് വർഷങ്ങൾക്കു മുന്പേ നമ്മൾ ഒരു അൻപത് അൻപത്തി രണ്ട് രൂപയിൽ കടന്നു പെട്രോൾ ഒരു ലിറ്റർ പെട്രോൾ ഇപ്പം അതു വർഷന്തോറും കൂടി കൂടി ഇപ്പം നൂറ്റി പതിനാറ് രൂപ വരെ ആയി പതിനാറ് പതിനേഴു വരെ ആയി വന്നിരിക്കുകയാണ് ഇപ്പം ദാ ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ കഴിയുമ്പോഴും ഇപ്പം ദാ അടുത്ത ഉടനെ ഇനിയിപ്പം ഗ്യാസ്സിൻറ്റെയും നമ്മുടെ പെട്രോളിന്റെയൊക്കെ വില കൂട്ടും എല്ലാത്തിനും ടാക്സാണ് എല്ലാ ജി എസ് ടിയും ടി എസ് ടിയും എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ പെട്രോളിന് പണ്ട് ഒര് ലിറ്റർ നമ്മളുപയോഗിച്ചോണ്ടിരുന്ന ഇപ്പത് ഒരു ഒന്ന് ഒന്നര ലിറ്റർ ഏകദേശം ഒന്നര രണ്ട് ലിറ്റർ അടുപ്പിച്ചിട്ടുങ്കിൽ മാത്രമേ ഒന്നര ലിറ്റർ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ദൂരത്ത് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഒരു നോക്കി നമുക്ക് എന്താ പറയുക അതു നമുക്ക് ദോഷം തന്നെയാണ് കാരണം എന്നു വെച്ചാൽ നമ്മുടെ അതിൽ നിന്ന് പെട്രോൾ കൂടുതലുപയോഗിക്കുന്നത് അനുസരിച്ച് നമ്മൾക്കതിൽ നിന്ന് കാർബൺ മോണോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മുടെ ഓസോൺ ലയറിനെ ബാധിക്കുകയും ചെയ്യുന്നു അത് ഇത് അത് ബ്രീത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് ലങ്സ് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് അതുകൊ അതുകൊണ്ട് ഇപ്പാൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ പെട്രോൾ വില കൂടിയ അനുസരിച്ച് ഇപ്പം എല്ലാവരും ഇലക്ട്രിക് വാഹനത്തെ ആശ്രയിക്കുന്നു പെട്രോളിൻറ്റത്രയും പൈസ നമ്മുടെ എല്ലാ കറണ്ടിൽ നിന്ന് ആകുന്നില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം അത് യൂസ്ഫുളാണെന്ന് അറിഞ്ഞൂ കൂട പക്ഷെ എന്തായാലും പെട്രോളിന് ഇത്രയും പൈസ കൂടുന്ന അനുസരിച്ച് കാരണം ജനങ്ങൾ ഇപ്പം എല്ലാ ആരെ വീട് എടുത്ത് നോക്കിയാൽ എല്ലാര വീടുകളിലും ഒന്ന് രണ്ട് സ്കൂട്ടറും എല്ലാം കാണും ഉണ്ട് അപ്പോഴത്തേക്കും അവർ അത്രയും പെട്രോൾ ഉപ വാങ്ങിച്ചാണ് അ ഓരോരുത്തരും ഓരോ വ വാഹനം ഓടിക്കുന്നത് മൈലേജും കുറയുന്നു പെട്രോളിനും വില കൂടുതലായി അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് ബാധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്